ഹലോ ട്രാൻസ്പോർട്ട് ഏജൻസിയല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാർ എടുത്തോണ്ട് എൻ്റെ മോളുടെ വീട്ടിൽ ഒരു കല്ല്യാണത്തിന് പോയിരുന്നു ഏ പകുതി വഴി ആയതേ ഉളളൂ അവിടെ ചെന്നപ്പോഴ് പകുതിയായപ്പോഴ്ത്തേക്കിനും ഈ കാറിൻ്റെ വീല് പഞ്ചറായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ വന്നപ്പോഴ്ത്തേക്കിനും ഞങ്ങൾക്ക് ആ സമയത്ത് ആ സ്ഥലത്ത് ചെല്ലാൻ പറ്റുകയോ ആ കല്ല്യാണം കൂടാൻ പറ്റുകയോ ചെയ്തില്ല അപ്പം നോക്കുമ്പോൾ ആ കാറിന് ഹോണില്ലാ അതിന്ന് ഹോണടിക്കാൻ എന്നൊരിതില്ലാ അതില്ലാ സീറ്റ് വളരെ മോശം ഇങ്ങനയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലല്ലോ നമ്മൾ വേണ്ട വിധത്തിൽ ഒരു കാറ് വാടകയ്ക്ക് എടുത്ത് കാശ് കൊടുത്തതല്ലേ വാടകയ്ക്ക് എടുക്കുന്നത് ചെയ്യേണ്ട പോലെ നല്ല സാധനങ്ങൾ കൊടുത്തു വേണ്ടേ വാഹനം സീറ്റ് ട്രാൻസ്പോർട്ട് ഏജൻസി ഇതെല്ലാം ചെയ്യുവാനായിട്ട് ചെയ്യാനായിട്ട് അല്ലാതെ ഉത്തരവാദിത്വമില്ലാത്ത ജോലികളാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ലല്ലോ ഇത് ട്രാൻസ്പോർട്ട് ഏജൻസി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഏജൻസിയാണ് അത് നല്ല പോലെ ചെയ്യണം ഡ്രൈവറോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏജൻസി തന്നെ വേണ്ടേ ഇതിനെപ്പറ്റി പറയുവാനായിട്ട് റോഡെല്ലാം ഒന്നാമത്തെ മോശമായ റോഡ് എല്ലാം വളരെ മോശമായ രീതിയിലാണ് കെടക്കുന്നത് അപ്പം അതിലൂടെ ഈ പഞ്ചറായ വണ്ടിയൊക്കെ എങ്ങനെ ഓടിക്കും